ഞാൻ എഡ്യൂക്കേഷനിൽ ചിൽഡ്രൻസ് ബുക്സ് അഥവാ കുട്ടികളുടെ പുസ്തകങ്ങൾ എന്ന വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് പ്രത്യേകമായൊരു കാരണം എന്തെന്ന് വച്ചാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന പുസ്തകങ്ങൾ കണ്ടാൽ നമുക്കൊന്നു കൂടി ജനിച്ചാലോ എന്നുള്ള ചിന്ത വരും അത്തരത്തിൽ അത്രയും ഏറെ ജീവിത പാഠങ്ങൾ വളരെ ഇളം വാക്കുകളിലൂടെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു വളരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പല സ്വഭാവങ്ങളും തന്നേ അറിഞ്ഞു കൊണ്ട് ജനിച്ചുവരികയാണ് ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ വാർത്തെടുക്കാൻ കഴിയുന്ന അത്തരത്തിൽ നല്ല നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ വളരെ വലുതായ നമ്മളെപ്പോലും ആകർഷിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ അത് എത്രത്തോളം ആകർഷിക്കുമെന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് പണ്ടുകാലങ്ങളിൽ നമ്മൾ ഭയപ്പെട്ടിരുന്നു കുട്ടികൾക്ക് ലഭിക്കുന്നതെല്ലാം നല്ലതാണോ അവരറിയാൻ പോകുന്ന വിവരങ്ങൾ അവർക്ക് ലഭിക്കാൻ പല മാർഗങ്ങളും ഉണ്ട് ഇന്ന് കാലത്ത് ഇൻറ്റർനെറ്റും മറ്റു പല സൗകര്യങ്ങൾ ഉള്ളപ്പോഴും പുസ്തകങ്ങൾ വായിക്കാനാണ് എല്ലാവരും കുട്ടികളോട് പറയുന്നത് ഇത്തരത്തിൽ വായിക്കാനുള്ള പുസ്തകങ്ങൾ നല്ലതാണോ എന്ന് അറിയേണ്ടത് വളരെ പ്രധാനമായ കാര്യമാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് കുട്ടികൾക്കിപ്പോൾ ലഭിക്കുന്ന പുസ്തകങ്ങൾ വളരെ ഏറെ അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വളർന്ന് വരുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല മറിച്ച് ജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്പെടുന്ന പല അറിവുകളും അവർക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് ഇത് വളരെ വളരെ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധരാവാറുണ്ട് അവർക്ക് ലഭിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് ലഭിക്കുന്ന അറിവുകൾ കാരണം ചെറുപ്പത്തിൽ നമുക്ക് ലഭിക്കും ചില അറിവുകൾ നമ്മൾ ജീവിതകാലം മരണം വരെ കാത്തുസൂക്ഷിക്കാറുണ്ട് അത്തരത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒട്ടേറെ ഗുണപാഠങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് കുട്ടികളുടെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഇത് വളരെ സന്തോഷമായ ഒരു കാര്യമാണ് ഈ അടുത്ത് ഞാൻ വായിച്ച പല കുട്ടികളുടെ പുസ്തകങ്ങളും വളരെ അധികം ജീവിതപാഠങ്ങളും മൂല്യങ്ങളും നിറഞ്ഞതായതിനാൽ അത് വളരെ എന്നെ ആകർഷിച്ചു ഇരുപതുവയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള കഥകൾ ആകർഷിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ നിന്നു ജനിച്ചു വരുന്ന കുഞ്ഞു